പാചകത്തിന് ഞങ്ങൾ ഉപയോഗിക്കുന്ന പൊടികൾ ഞങ്ങൾ വീട്ടിൽ തന്നെ പൊടി ആക്കിയെടുത്ത് ശരിയാക്കി എടുക്കുകയാണ് അല്ലാതെ ഞങ്ങൾ വെളിയിൽ നിന്ന് പൊടികളൊന്നും മേടിച്ച് ഉപയോഗിക്കുന്നില്ല എല്ലാം വീട്ടിൽ തന്നെ പൊടിച്ച് ചേർക്കുകയാണ് അത് കൊണ്ട് ഞങ്ങൾ അല്ലാതെ പുറത്ത് നിന്നൊന്നും മേടിക്കുന്നില്ല വീടുകളിൽ ആഹാരത്തിനായാലും എന്തോ വിശേഷങ്ങൾ വന്നാലും ഞങ്ങൾ വീട്ടിൽ തന്നെ എല്ലാം പൊടിച്ച് മസാലകളായാലും മുളകായാലും മല്ലി ആയാലും എല്ലാ സാധനങ്ങളും പൊടിച്ച് തന്നെ എടുത്ത് ഉപയോഗിക്കുകയാണ് എല്ലാ കാര്യത്തിലും ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഫുഡ് ഫെസ്റ്റ് വന്നാലും ഞങ്ങൾ പൊടി ഉപയോഗിച്ച് വീട്ടിൽ ഉപയോഗിച്ച പൊടി തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്